ഞാനൊരു മിക്സി വാങ്ങി അവർ ഒരു വർഷത്തെ ഗ്യാരൻഡിയെക്കെ പറഞ്ഞെങ്കിലും പെട്ടന്ന് അതിൻ്റെ ജാറ് ഒഒരെണ്ണം പൊട്ടിപ്പോയി പിന്നെ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ആണ് എന്ന് പറഞ്ഞെങ്കിലും അത് ഭയങ്കര നോയ്സിയാണ് ശബ്ദം ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഡ്രൈനേജ് പൈപ്പും പെട്ടന്ന് ദ്രവിച്ചു പോയി പൊട്ടി വെള്ളവൊക്കെ ലീക്കാവുന്നു ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജാ വാങ്ങിയത് പക്ഷേ അതിന് ഫ്രീസറ് നേരായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല കംപ്ലെയ്ൻന്റ ചെയ്ത് അവിടന്ന് ആ കമ്പനീടെ സ്റ്റാഫ് വന്ന് നോക്കിയെങ്കിലും അത് നമുക്ക് സാറ്റിസ്ഫൈയായിട്ട് അത് ചെയ്ത് കിട്ടിയില്ല പിന്നെ ഞാൻ അത് വേറെ പ്ര പ്രോഡക്റ്റ് മാറ്റി വേറെ പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വന്നു അതുപോലെ തന്നെയാണ് എ സി എ സി അവർ പറഞ്ഞ വാറൻഡി ടൈം അത്രേം നാളൊന്നും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല അത് കൂളിങ്ങ് വളരെ പ്രശ്നമായിരുന്നു